എന്റെ മാതൃഭാഷ മലയാളമാണ് അതിനാൽത്തന്നെ എനിക്കേറ്റവും പ്രിയപ്പെട്ട ഭാഷയും മലയാളം തന്നെയാണ് മലയാള ഭാഷ എഴുതാനും സംസാരിക്കാനും എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ് ഞാൻ ജനിച്ച ഇന്നുവരേയും ഇനിയങ്ങോട്ടും എനിക്ക് ഇഷ്ടവും സംസാരിക്കാൻ എളുപ്പവുമാക്കി തീർക്കുന്നത് മലയാളമാണ് നമ്മളുടെ ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന കഴിവാണ് നമുക്ക് സംസാരിക്കുമ്പോളാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു പവറ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കുറച്ചും കൂടെ ഒരു നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ നമുക്ക് സ്വയമേ ഉള്ള ഒരു വിശ്വാസമാണ് നമ്മളുടെ എല്ലാത്തിനേയും നമുക്ക് എതിർക്കാൻ കഴിയുകയും ഇങ്ങനെ ഉള്ള നമുക്കൊരു ശക്തിയാണ് നമ്മളുടെ സംസാരം ആ സംസാരം നമുക്ക് എപ്പഴും ഫ്ലുവന്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ ഭാഷയിലൂടെയാണ് നമ്മുടെ ഭാഷ നമ്മളെ ഒരു നല്ല വ്യക്തിയാക്കാനും ചീത്ത വ്യക്തിയാക്കാനും സഹായിക്കുകയാണ് നല്ല വ്യക്തിയിൽ നിന്ന് നമുക്ക് എപ്പഴും നമ്മുടെ ഭാഷ നല്ലതാണെങ്കിൽ നമ്മൾ എപ്പഴും നല്ല നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും രുപത്തിലാണേലും ഭാവത്തിലാണെങ്കിലും നമുക്ക് ഒരു നല്ല വ്യക്തിയെന്ന നിലയിൽ ഒരു സ്ഥാനം കിട്ടും നമുക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രശ്നവും എന്ത് സാഹചര്യത്തിലത് ഏത് സാഹചര്യത്തിലാണേലും നമുക്ക് പിടിച്ച് നിൽക്കാൻ നമ്മുടെ സംസാര ശേഷി നമ്മളെ സഹായിക്കും ആ സംസാര ശേഷി നമുക്കേറ്റവും നമ്മളെ കൊണ്ട് ഏറ്റവും കഴിയുന്ന ഭാഷയായിരിക്കും മലയാളം എന്നെ സംബന്ധിച്ച് എനിക്കെപ്പഴും മലയാള ഭാഷയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ശക്തി കിട്ടുകയാണ് എനിക്ക് പറയുന്ന കാര്യങ്ങൾ ദൃഢമായി പറയുവാനും അതിനെതിരെ പ്രതിരോധിക്കാനും എല്ലാത്തിനും എനിക്ക് കഴിയുന്നത് ഈ മലയാള ഭാഷ കൊണ്ടാണ് ഭാഷ എപ്പോഴും നമ്മുടെ സംസാ നമ്മുടെ മാതൃ ഭാഷ ആയതിനാൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്കൊരുപാട് കഴിവ് വരുന്നതും മലയാള ഭാഷയിൽ സംസാരിക്കാനാണ് ഭാഷ എപ്പഴും നമ്മളുടെ നമ്മുടെ അമ്മയെപ്പോലെയാണ് നമ്മൾ മാതൃഭാഷയെ കാണുന്നത് മാതൃഭാഷയിലൂടെ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾപ്പോലും നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഇനി എത്ര തെറ്റ് കൂടായ്മയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ ശക്തിയാണ് മലയാള ഭാഷ നമ്മൾ എൻ്റെ സ്വഭാവത്തിലും എൻ്റെ രൂപത്തിലും എൻ്റെ വ്യക്തിത്വവും കാണിക്കുന്നത് മലയാള ഭാഷയിലൂടെത്തന്നെയാണ് എൻ്റെ ഭാഷയാണെൻ്റെ വ്യക്തിത്വം ഞാനെങ്ങനെ സംസാരിക്കുന്നു ഒരു എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ സ്വഭാവത്തിലൂടെയാണ് എന്നെ എല്ലാവരും മനസിലാക്കുന്നത് എനിക്കൊരു വ്യക്തിത്വം ഉണ്ടാവുന്നത് തന്നെ എൻ്റെ സംസാരത്തിലൂടെയാണ് എൻ്റെ സംസാരം എപ്പഴും നല്ല രീതിയിൽ പോകാൻ കാരണവും മലയാള ഭാഷയാണ് ഒരിക്കലും നമുക്ക് നമ്മൾ ഇങ്ങനെ ചീത്തയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരു നല്ല രൂപത്തില് നല്ലതല്ലായ്മ കാണിക്കുന്ന ഒരാളോട് നമുക്ക് അയ മലയാള ഭാഷയിലാണ് നമ്മുടെ ഭാഷയോടെ നമുക്ക് സംസാരിച്ച് മനസിലാക്കി നേർവഴിയിൽ നിൽക്കാൻ കഴിയും നമ്മളെപ്പഴും നമ്മുടെ ഭാഷയിലൂടെയാണ് നമ്മുടെ അടിസ്ഥാനമായി പോകുന്നത് എനിക്ക് എപ്പഴും എൻ്റെ ഭാഷ എൻ്റെ ഭാഷ മലയാളമാണ് എനിക്കെപ്പഴും സംസാരിക്കാൻ നമുക്ക് നമ്മടെ രാജ്യത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഭാഷകളുടെ കടന്ന് വരവോട് കൂടിത്തന്നെ നമ്മുടെ മലയാള ഭാഷയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സംസാര ശേഷിയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്ന് പോകുന്നത് നമുക്ക് ഈ മലയാള ഭാഷയിൽത്തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രചോദനമാണ് നമുക്ക് സംസാരിക്കാനും നമുക്ക് എന്തെഴുതാനും നമുക്കൊരു ആളുകളുടെ മുന്നിൽ പോയി നിന്ന് ഒരു പേടി കൂടാതെ സംസാരിക്കാൻ നമ്മുടെ ഭാഷ നമ്മളെ സഹായിക്കും